ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നത്തിലൊന്നാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം ഈ പ്ലാസ്റ്റിക് തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് കത്തിച്ചളയുന്നുണ്ട് ആ കത്തിച്ചുകളയുന്ന ഓസോൺ പാളിയിൽ വിള്ളല് കാരണം നമ്മള്ക്ക് പ്രശ്നങ്ങൾ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ എല്ലായിടത്തും ഈ വീടുകള് വയ്ക്കുന്നതുകൊണ്ട് നദികള് എല്ലാം ഈ ഫ്ളഡൊക്കെ വരുമ്പോള് നമുക്ക് വീടുകളും എല്ലാം പോവുന്നുണ്ട് ഫ്ലഡ് വന്ന് എല്ലാം നശിപ്പിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോള് ഈ ഈ സ്ഥലമില്ലാതെ വരുമ്പോള് വെള്ളത്തിനു പോവാൻ മഴ വരുമ്പോള് മഴ പെയ്ത് വെള്ളം പോവാതെ അവസ്ഥ വരുമ്പോഴത്തേക്ക് ഫ്ലഡായി മാറും അങ്ങനെ ഒരുപാടധികം ആൾക്കാരുടെ സ്വപ്നസാഫല്യമായ വീട് നശിപ്പിക്കുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അവര് അഭിമുഖികരിക്കുന്നത് അപ്പോള് നമ്മളെയീ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും വളരെ അധികം കൂടുതലാണ് നമ്മുടെ ഈ കടലിൽ തന്നെ മീനുകളുടെ വാ പോലും ഈ പ്ലാസ്റ്റിക്കില്ലേ അകത്തായിപ്പോയി അവർക്ക് ഭക്ഷണം കഴിക്കാൻപോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എന്ന രീതിയില് അവര് വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് പല വാർത്തകളിലും എല്ലാത്തിലും അറിയാവുന്ന കാര്യമാണ് അപ്പോള് നമ്മളെന്ത് ചെയ്യുന്നു നമ്മളീ പ്രകൃതിയെ ദ്രോഹിക്കും പോലെയാണ് നമ്മള്ക്ക് അത് തിരിച്ചും നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി ഇപ്പോള് മഴയായാലും നമ്മളീ സമയത്ത് ചിലപ്പോള് വേനൽകാലത്ത് മഴ കിട്ടി എന്നു വരും ഇപ്പോഴത്തെ അവസ്ഥയില് നമുക്കങ്ങനെയാണ് വേനൽക്കാലത്ത് മഴ ലഭിക്കുക മഴക്കാലത്ത് ചിലപ്പോള് മഴ ലഭിക്കണമെന്നില്ല അത് നമ്മുടെ ഈ പ്രകൃതിയെ തന്നെ നമ്മള് നശിപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോള് നമ്മുടെ നമ്മളെ നദികളെ നമ്മളെ കാടുകളെ മലകളെ എല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ അവകാശം മാത്രമാണ് അപ്പോള് നമ്മുടെ ഇൻഡ്യ അഭിമുഖി ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം കുറേ ഏറ്റവും വലുതാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പിന്നെ ഈ മണ്ണ് നദികൾ നികത്തി കാട് നശിപ്പിക്കുക ഇതൊക്ക വളരെ അധികം നമ്മളെ പരിസ്ഥിതിയെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെയാണ് പ്ലാസ്റ്റിക്കുകള് ഈ മഴ സമയത്ത് ഒഴുകി കടലില് വെള്ളം പോകുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക്കുംകൂടെ കൂടെ പോകുന്ന അപ്പോള് ഈ മീനുകളെല്ലാം ഭക്ഷിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കുകളാണ് അങ്ങനെ മീനുകൾക്ക് തന്നെ അതൊരു പ്രശ്നമായി വരുന്നുണ്ട് ഈ പ്ലാസ്റ്റിക്കൊക്കെ അടിഞ്ഞ് പോകാറില്ല പക്ഷെ ഇത് കത്തിച്ച് കളഞ്ഞാലും അത് നമ്മള്ക്ക് മനുഷ്യർക്കും അത് ക്യാൻസർ വരെ ഉള്ള രോഗങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ പിന്നെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം വരുന്നത് നമ്മള് തന്നെയാണ് ഈ മനുഷ്യര് തന്നെയാണ് പരിസ്ഥിതി പ്രശ്നത്തിന് ഏറ്റവും വലിയ ഘടകമായിട്ടുള്ള ഈ കാടുകൾ നമ്മൾ വീടുവയ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടിപ്പിടിക്കുന്നുണ്ട് ചിലരതിനെ തീയിട്ട് അതിനെ മരങ്ങളെല്ലാം കത്തിച്ച് നശിപ്പിക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് കാടല്ലാതായി മാറും അവര് കയ്യടക്കും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കാടുകൾ നശിപ്പിക്കുന്നത് നമ്മള് നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കുമ്പോള് നമ്മളെത്തന്നെ അത് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോള് എത്ര അധികം നമ്മള് പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മള് ജീവിച്ചാല് അതുപോലെ പരിസ്ഥിതിയും നമ്മളെ സ്നേഹിക്കും